ഇത് ബ്രോക്കർ അല്ലേ

ആ ഒന്നോ രണ്ടോ മുറിയായാലും കുഴപ്പം ഇല്ല താമ ആ ആ താമസിക്കാനുള്ള സൗകര്യം കൂടെ ഉൾപ്പെടെ

റോഡ് സൈഡ് ആയിരുന്നു താല്പര്യം ഞങ്ങൾ പണിക്കൻകുടി ഭാഗത്ത് ആ എത്രയാകും

ഇരുപത്തി അഞ്ച് രൂപ കുറച്ച് കുറച്ച് തരാൻ പറ്റുമോ

ആ ആണ് വെള്ളം സൗകര്യം ഒക്കെ ഉണ്ടോ കറണ്ട് മ് ആ മെയിൻ റോഡ് സൈഡ് ഹലോ ആ ഹാ കട തുടങ്ങാൻ സൗകര്യം ഉണ്ട്

ആ വീടും കടയും കൂടെ മൊത്തമായിട്ട് കുറച്ചും കൂടെ ഒന്ന് ഞങ്ങൾക്ക് ഒരു അഞ്ച് വർഷത്തേക്ക്

നിങ്ങൾ എന്ന് അവിടെ കാണും നിങ്ങൾ എന്നാണ് അവിടെ കാണുന്നത് എന്നു ഉണ്ട്

ആ ആ ആ

ഞങ്ങൾ ആ അതെ അതെ അതെ ആ കൂടുതൽ വേണം

കറണ്ട് ബില്ല് നിങ്ങൾ അടയ്ക്കുമോ ഞങ്ങൾ അടയ്ക്കണോ മ് വടകയിൽ പെടുകയില്ല എക്സ്ട്രാ അടയ്ക്കണം വീടും വീടും കട മുറിയും കൂടെ ഒന്നിച്ചാണോ

ആ എന്നാൽ ഞാൻ വിളിക്കാം